എൻ്റെ പേര് മുബഷിറ ആ ഡോക്ടറല്ലേ ആ ഡോക്ടറേ ഞാൻ എനിക്ക് പനിയും ജലദോഷവുമൊക്കെ ആയിരുന്നു ആ ഞാൻ മെഡിസിൻ പാരസെറ്റമോൾ കഴിച്ചിരുന്നു എന്നിട്ട് കുറവൊന്നുമില്ല ആ നല്ല ജലദോഷമുണ്ട് ഞാനിവിടെ കോഴിക്കോട് മുക്കതാണേ ഇവിടൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു അങ്ങനെ മരുന്ന് കുടിച്ചിട്ടൊന്നും കുറയുന്നില്ല മാഡം ഇപ്പോൾ രണ്ടുദിസമായി മരുന്ന് മേടിച്ചിട്ട് അവർ കുറവില്ലെങ്കിൽ വന്നു കാണിക്കാൻ പറഞ്ഞു പിന്നെ മരുന്ന് കുടിച്ചിട്ടൊന്നും മാ മാറുന്നൊന്നുല്ലാ രണ്ടു മൂന്നു ഇപ്പോൾ ഒരാഴ്ചയായി ഇപ്പോൾ പനിയും കൊണ്ട് പനിയുണ്ട് ജലദോഷമുണ്ട് ഇപ്പോൾ മേലും ശരീരം ഫുള്ളായിട്ട് നല്ല വേദനയൊക്കെ ഉണ്ട്

ആ ഇല്ല മരുന്ന് തന്നു എന്നിട്ട് ഒരാഴ്ച കഴിക്കാൻ പറഞ്ഞു അപ്പോഴെക്കും കുറഞ്ഞോളുമെന്ന് പറഞ്ഞു ഇപ്പോൾ കാണിച്ചു രണ്ടുദിസായിട്ടും തീരെ കുറവില്ല ആ മാഡത്തിൻ്റെ മാഡം എവിടെയാണ് സ്ഥലം ആണോ മാഡം മാഡം കോഴിക്കോട് താമരശ്ശേരി ഉണ്ടായിരുന്നുന്ന് പറഞ്ഞു

ആണോ മാഡം ആ മാഡത്തിനെ വന്നു കാണാൻ പറ്റുമോ ഇന്ന്

എങ്ങനെ മാഡം ബുക്ക് ചെയ്യണമല്ലേ ഈ നമ്പറിൽ ബുക്ക് ചെയ്താൽ മതിയോ ആ എനിക്കിപ്പോൾ ജലദോഷത്തിന് ആവി പിടിക്കാൻ എന്തെങ്കിലും പറ്റുമോ ആ എന്തെങ്കിലും മരുന്നോ മരുന്നിട്ട് ചേർക്കണോ അതിൽ വെറുതെ ചുടുവെള്ളത്തിൽ ആവി പിടിച്ചാൽ മതിയോ അങ്ങനെ ആവിപിടിച്ചു നോക്കാല്ലേ ആ അങ്ങനെയൊന്ന് കുടിച്ചു നോക്കട്ടെ ഞാൻ ആവിയും ആവിയും പിടിച്ചു നോക്കിയതായിരുന്നു അവിടുന്ന് ഒരു പ്രാവശ്യം ആവിപിടിച്ചായിരുന്നു എന്നിട്ടൊന്നും കുറയുന്നില്ല

ആം കുറവില്ലെങ്കിൽ മാഡത്തിനെ വന്ന് കാണാല്ലോ മാഡം ആ ഓക്കെ മാഡം ആ ആ ഓക്കെ മാഡം